ആ അതെ ആണോ ആ മാഡത്തിൻ്റെ പേരും സ്ഥലം ഒന്ന് പറയാമോ

താമരശ്ശേരി ആണ് വരാ ആ എന്താണ് വേണ്ടത് മാഡം സ്പെഷ്യൽ ആയിട്ട് മീൻ കറി ഐല ഉണ്ട് മത്തി ഉണ്ട് പിന്നെ പുഴ മീൻ ഉണ്ട് അങ്ങനത്തെ അങ്ങനത്തെ രണ്ട് മൂന്ന് തരം മീനുകൾ ഉണ്ട് പുഴ മീൻ ഒന്ന് ഫുള്ളായിട്ട് ഉള്ളത് ആണെങ്കിൽ ഇരുന്നൂറ് രൂപ ആ പിന്നെ കഷ്ണം ഒക്കെ ആണങ്കിൽ അതിന് നൂറ്റിപ്പത്ത് അങ്ങനെ ഒക്കെ പല പല റേറ്റ് ആണ് ആ ആ മാഡത്തിന് ഇപ്പം എന്ത് മീനാ വേണ്ടത്

പുഴ മീൻ കറി ആണോ മാഡം കറി ആണോ വേണ്ടത് അതോ ഫ്രൈ ആണോ ഫ്രൈ ആണ് അല്ലേ എത്ര എണ്ണം വേണം ഒന്ന് ആണ് അല്ലേ ആ ഓ ഫുഡ് എന്തെങ്കിലും റൈസ് അങ്ങനെ എന്തേലും വേണോ മാഡം വേണ്ട അല്ലേ ആ ഇവിടെ പിന്നെ ഫിഷ് അല്ലാണ്ട് വേറെയും ഐറ്റംസ് ഒക്കെ ഉണ്ട് ആ ചിക്ക് ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ആണേ തന്നെ അൽഫാമ് ബ്രോസ്റ്റ് ബിരിയാണി മന്തി അങ്ങനെ ഉള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് ചിക്കൻ പീസ് മാത്രം ആയിട്ട് ചിക്കൻ പീസ് മാത്രം ആയിട്ട് പൊരിച്ച് ഒക്കെ കൊടുക്കുന്നുണ്ട് മാഡം ചിക്കന് ബീഫ് ഒക്കെ വരട്ടീട്ട് ഒക്കെ കൊടുക്കുന്നുണ്ട് മാഡം അങ്ങനെ എന്തേലും മാഡം നോക്കുന്നുണ്ടോ ഇല്ല അല്ലേ ആ ഇപ്പോൾ മീനാ വേണ്ടത് അല്ലേ മീൻ വേറെ എന്തെങ്കിലും വേണോ മത്തി ഉണ്ട് പൊരിച്ചതും ഉണ്ട് വ അതന്നെയാണ് വേണ്ടത് അല്ലേ ആ ഒരാൾക്ക് ഉള്ളത് അല്ലേ വേണ്ടത് വേറെ റൈസ് ഒന്നും ഇല്ലല്ലോ ആ മാഡത്തിന് അപ്പോൾ ഒന്ന് അല്ലേ ഒന്ന് അല്ലേ വേണ്ടത് ആ അപ്പോൾ ഇരുന്നൂറ് രൂപ ആവൂട്ടോ ഡെലിവറി ഉണ്ട് ഡെലിവറി നിങ്ങളുടെ വീടും ലൊക്കേഷനും ഒന്ന് സെൻഡ് ചെയ്താൽ മതി അപ്പോൾ ലൊക്കേഷൻ സെൻഡ് ചെയ്താൽ ഞങ്ങൾ തന്നെ കൊണ്ട് തരൂട്ടോ ഓക്കെ താങ്ക് യൂ മാഡം